ഇവിടെ ആ ഇവിടെ നാടൻ ഫുഡ് തന്നെയാണ് ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നത് നാടൻ ഫുഡിലാണ് താൽപ്പര്യം കാരണം എന്താച്ചാൽ ഇപ്പോൾ എങ്ങനത്തെ ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ആ ആ പടുകൂട്ടാനായിട്ട് ല്ലേ ആ ഓക്കെ ആ ഞങ്ങൾ തന്നെ കാവത്ത് പിന്നെ അതുപോലെ തന്നെ കറൂട്ട ചേന ചേമ്പ് ഒക്കെയുള്ള നാടൻ ഫുഡുണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ പിന്നെ നല്ല സദേൃം കാര്യങ്ങളൊക്കെ നാടൻ അത് പച്ചടീലൊക്കെ ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പൊഴത്തെ കാലത്തെ ഫുഡ് ആളുകൾക്ക് ഡേഞ്ചറാണല്ലോ പല രീതീൽ

ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റോം ബെസ്റ്റാണിത് കേട്ടാ കാരണെന്താച്ചാൽ ഞങ്ങൾ അമ്മീമ്മേ അരച്ചിട്ട് നല്ല പഴയരീതീ പഴമരീതീലുള്ള ഫുഡുകളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാറ് എങ്ങനൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ പറ കാരണം എന്ത്വെച്ചാ ആ അതേപോലെ തന്നെ ആണ് അതേപോലെ തന്നെ മൺചട്ടീല് വെച്ചിട്ട് ആ രൂപത്തിൽ ഇട്ടുകൂടി കിട്ടാൻവേണ്ടിയുള്ള ഫുഡുകളാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറ് ആ രൂപത്തിൽ നിങ്ങക്കുണ്ടാക്കിത്തരാം ഓണത്തിന് ഞങ്ങൾ സദ്യ സദ്യ നാടൻ സദ്യയുണ്ടാകും കാരണം അതിൽ അവിയൽ പച്ചടി കിച്ചടി തോരൻ സാമ്പാർ അതിലെല്ലാം വരും അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ അമ്മീമ്മേ അരച്ചിട്ടും ഒരു ചേരുവ വേറൊന്നും എങ്ങനെ ആ പായസം രണ്ട് മൂന്ന് വിധം ഉണ്ടാകും പാലട സേമിയ സേമിയ പാലട സേമിയ അരിപ്പായസോക്കെയായിട്ട് രണ്ട് മൂന്ന് വിധം ഉണ്ടാകും ആ ആ പെരുന്നാൾക്ക് നമ്മൾ എങ്ങനെ വേണംന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് എല്ലാം വരും അതിനകത്ത്